ഹലോ ആ ആ അത് അതുതന്നെയാണ് എന്താണിപ്പോൾ ടൂർ പോവുന്നുണ്ടോ ആ മ ക്ഷേത്രങ്ങൾക്കാണോ ആ അങ്ങനെയാണെങ്കിൽ നമുക്കേ ഇത് ഗുരുവായൂർ മാത്രമായിട്ട് പോവേണ്ട നമുക്കൊരു ട്രിപ്പ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുന്നൊരു പരിപാടി ഉണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരെ ഒക്കെ കൂട്ടിയിട്ട് ഒരു ട്രാവലറിനൊരു പത്ത് പതിനൊന്ന് ആളെ കിട്ടുമെങ്കിലേ അങ്ങനെ കുറച്ച് ആൾക്കാർ ആയിട്ടുണ്ട് അപ്പം അമ്പലത്തിൽ പോവണം എന്നുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ട്രിപ്പ് ആയിട്ട് പോവാം അത് ഇപ്പോൾ ഇപ്പോൾ അതേ എങ്ങനെ എന്നുവെച്ചാലേ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ സംഗതി ഞാൻ പറഞ്ഞുതരാം അത് ഒരു നാലമ്പല യാത്രയൊക്കെ അങ്ങനെ പോവാം നമുക്ക് അത് അങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഗുരുവായൂർ പോയി പിന്നെ തൃപ്രയാർ പോയി ഏ അപ്പോൾ നമുക്ക് ഗുരുവായൂരിൽ ചെന്നിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടേ തൃപ്രയാർ പോവാം പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവാം അതിൽ അങ്ങനെ അങ്ങോട്ട് ചോ ചോറ്റാനിക്കര ഒക്കെ കൊടുങ്ങല്ലൂർ ഏറ്റുമാനൂർ അങ്ങനെ ഒരേ റൂട്ടിൽ വരുന്ന കുറച്ച് അമ്പലങ്ങൾ ഉണ്ട് ഏ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കറങ്ങി അവിടെയൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടോ കാര്യങ്ങൾ മറ്റേ ഒക്കെ ഉണ്ട് പിന്നെ അവിടെ അന്നദാനം കഴിപ്പിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഏ അപ്പോൾ ആ അത് അധികം ഒന്നുമില്ല എന്ന് അത് കു കു നമുക്ക് കൂടുതൽ ആൾ ഉണ്ടാവുമ്പോഴേ നമുക്ക് ഒരു വണ്ടി വിളിച്ചാലേ ഒരു ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയേ ഒരാൾക്ക് വരുന്നുളളൂ പിന്നെ ക്ഷേത്രങ്ങളിൽ ആവുമ്പോഴേ ഭക്ഷണം ഒക്കെ ഒരുവിധം ക്ഷേത്രങ്ങളിൽ അന്നദാനം പരിപാടി ഒക്കെ ഉണ്ടാവുന്നോണ്ടേ ഭക്ഷണം ഒക്കെ അവിടുന്ന് കഴിക്കാം ആ പോവാൻ ഇന്നിപ്പോൾ ഇവിടെ പന്ത്രണ്ടല്ലേ ആയുള്ളൂ അടു അടുത്ത ശനിയാഴ്ച്ച ഒരു രാ പുലർച്ചെ ഒരു ഒരാറ് ആ ഒരഞ്ചര ആറ് മണിക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെടാം